ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് തനതായിട്ടുള്ള ഒരു കാര്യ കലകൾ എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കുച്ചിപ്പുടി ഭരതനാട്യം കഥകളി അങ്ങനത്തെ പലതരം കളികളുണ്ട് മോഹിനിയാട്ടം അങ്ങനത്തെ പലതരം കളികളുണ്ട് അപ്പോൾ എന്താണ് പറയുക ഇതൊക്കെയൊരു കല കലയായിട്ടാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത് കൂടുതലായിട്ടും നമുക്ക് ഇപ്പോൾ അങ്ങനെ കാണാനൊന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും ഇപ്പം ഇല്ല കാരണം എന്നു വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ കലോൽസവ വേദികളിലും ഇപ്പോൾ സ്കൂളുകളിൽ ആർട്സ് സ്പോർട്സ് അങ്ങനെയുള്ള ടൈമുകളിൽ മാത്രമാണ് ഇങ്ങനത്തെ കലാരൂപങ്ങളും ഇങ്ങനത്തെ ഉള്ള ആട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുള്ള കാണാൻ പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അല്ലാണ്ട് വേറെ നമുക്ക് എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാലൊന്നും കാണാനുള്ള ഒരിതില്ല പിന്നെ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മളിപ്പോൾ കളിമണ്ണ് ഉപയോഗിച്ച് ചട്ടി നിർമ്മിക്കുക അങ്ങനെ പലതരം കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് കരകൗശല വസ്തുക്കളായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ സ് തുണി സാമഗ്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസ്റ്റ്ർ തുണി പിന്നെ ഖാദി അങ്ങനത്തെ പലതരം തുണികളുണ്ട് അപ്പം അതൊക്കെയാണ് തുണി സാമഗ്രികൾ എന്നൊക്കെ പറഞ്ഞാൽ